ഒരു കുടുംബത്തിൻ്റെ ല് ഒരു കുടുംബത്തിലെ സ്ത്രീയുടെയും പുരുഷൻ്റെയും കടമകൾ എന്തക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു പേർക്കും ഈക്വൽ ആയിട്ട് എന്റോരിതിൽ പറയാണെങ്കിൽ രണ്ടു പേർക്കും ഈക്വൽ ആയിട്ടുള്ള കടമയാണ് ഇപ്പോൾ നമുക്കിപ്പമൊരു കുട്ടീനെ നോക്കാനാണെങ്കിലും പിന്നെ അതായത് ഭാര്യമാർ തന്നെ നോക്കണം ആ ഒരു മൈൻഡിൽ മൈൻഡ് ഞാൻ യോജിക്കുന്നില്ല അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടീനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രണ്ടു പേരുടെയും ആയിരിക്കലോ ഇപ്പം ഭാര്യൻ്റെയും ഭർത്താവിൻ്റെയും ആയിരിക്കും അപ്പം അവർ നോക്കാനുള്ള തുല്യ അവകാശം രണ്ടു പേർക്കും ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ജോലിക്ക് പോവാനാണെങ്കിൽ ഇപ്പം ഭാര്യ വീട്ടിലിരിക്കണം ഭർത്താവ് മാത്രം പോകണം ആ ഒരു മൈൻഡും എനിക്കില്ല അപ്പൊന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും പൊ അതായത് രണ്ടുപേരും പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് നോക്കാം പിന്നെ ഒരാൾ വീട്ടിലിരുന്ന് ചടച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് അടുക്കള പണിയെടുത്ത് കുട്ടീനേം പറഞ്ഞ് വിട്ട് വെറുതെ വീട്ടിലിരിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ചുള്ള ജോലിക്ക് പോവാല്ലോ പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അടുക്കള പണിയാണെങ്കിലും ഇപ്പം രണ്ടുപേരും ഒരാൾ തന്നെ ഒറ്റക്ക് ചെയ്യണന്നൊന്നും ഇല്ല ഇപ്പോൾ ഒരു വീട്ടിലാണെൽ രണ്ടുപേർക്കും ചെയ്യാം രണ്ടുപേരും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനത്ര അതിനനുസരിച്ച് പണിയൊക്കെ എളുപ്പമാവും പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഭാര്യ മാത്രം അടുക്കളയിൽ കയറി പണിയെടുക്കാൻ പറ്റുള്ളൂ അതിലും ഞാൻ യോജിക്കുന്നില്ല അപ്പം ഇപ്പൊക്കെ കുറെയൊക്കെ ആ ചുമതലകളിലൊക്കെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് എന്നാലും ഓവറൊന്നും മാറ്റം വന്നിട്ടില്ല പിന്നൊരു ഇരുപത് ശതമാനം ഒരു മുപ്പത് ശതമനൊക്കെ മാറ്റം വന്നൂന്ന് നമുക്ക് പറയാം